ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഫാഷനാണത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ആണുങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചിരുന്നത് ഇപ്പം ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ചെറുതാണോ വലുതാണോ അങ്ങനെ ഒരു പ്രായഭേദമോ ജൻറ്റർ വ്യത്യാസമോ ഒന്നും ഇല്ല ബുള്ളറ്റ് വരെ പെണ്ണുങ്ങളൊക്കെ ഓടിക്കുന്ന ഒരു കാലം ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ കടന്ന് പോകുന്നത് അത്രക്ക് ഒരു പേഷനായിട്ടാണ് ആളുകൾക്കിടയിൽ ഈ ബൈക്കുകൾ മാറിയിട്ടുള്ളത് എന്താ ഇപ്പോൾ എന്താ ഇപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പ്രായപൂർത്തിയായി ലൈസൻസ് എടുത്ത ആളുകളൊക്കെയാണ് റോഡിലൂടൊക്കെ യാത്ര ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സൈക്കിള് പഠിച്ചിറങ്ങിയാൽ തന്നെ പിന്നെ കുട്ടികളൊക്കെ നേരെ സ്കൂട്ടി പഠിക്കാനും അതുപോലെ ബൈക്ക് പഠിക്കാനൊക്കെയായിട്ട് ഒരു പത്ത് വയസ്സ് കഴിയുമ്പോത്തിന് തന്നെ അവർ റോഡിലേക്ക് ബൈക്കുമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കണ്ട് വരുന്നത് ഈയൊരു പ്രായപൂർത്തിയാകാതെ തന്നെ ഇങ്ങനെ പക്വത എത്താത്ത പ്രായത്തിൽ തന്നെ ഇവർക്ക് ഈ ബൈക്കിനോട് ഇത്രയും പാഷനായിട്ട് അവർ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അവർ നേരിട്ട് സ്പീഡ് കൺട്രോള് ചെയ്യാൻ കഴിയുന്നില്ല റോഡിലേക്ക് എത്തിയാൽ അവർക്കത് ഒരു ആവശ്യമാണ് അവരുടെ എനർജിയും എന്തൂസിയാസ ഒക്കെ കൊണ്ട് അവർ ബൈക്ക് ഒരു കൺട്രോളുമില്ലാതെയാണ് ഇന്ന് ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ റോഡിൽ നടക്കുന്നുണ്ട് ബൈക്ക് യാത്ര അത്രയ്ക്ക് പാഷനായിട്ടാണ് ഇന്നത്തെ ആളുകൾ കൊണ്ട് നടക്കുന്നത് ഇപ്പം പെണ്ണുങ്ങൾ തന്നെ അതുപോലെ ഏ ബുള്ളറ്റ് ഓടിക്കാനും ചെറിയ ഒരു പ്രായപൂർത്തിയാകുന്ന സമയം ഒക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികൾ തന്നെ ബുള്ളറ്റൊക്കെ ഓടിച്ച് റോഡിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് ബൈക്ക് യാത്ര നമുക്ക് നല്ല ആവേശം നൽകുന്നതും രസകരമായ യാത്രയാണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര കൂടുതൽ രസകരമാകുന്നത് പക്ഷെ ആ ബൈക്കിനോടുള്ള പാഷൻ കൊണ്ട് ആളുകൾ അതൊന്നും ശ്രദ്ധിക്കില്ല അവർ ടി വി യിൽ വരുന്നതോ അല്ലെങ്കിൽ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ ഒരു ബൈക്ക് റൈഡൊക്കെ വിചാരിച്ചും റോട്ടിലൂടെ ഈ ബൈക്ക് പറത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ റോഡുകളൊക്കെ പറഞ്ഞാൽ ആകെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞതാണ് അങ്ങനെയുള്ള റോഡുകളിലൂടെയൊക്കെ അവരിങ്ങനെ ചീറിപ്പാഞ്ഞുള്ള ബൈക്ക് യാത്ര നടത്തുമ്പോൾ അതൊരുപാട് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് ആക്സിഡൻറുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതെല്ലാം ഇങ്ങനെയുള്ള അവരുടെ പാഷൻ കൊണ്ട് അവർ ഓവറായിട്ട് സ്പീഡ് കാണിക്കുകയും നമ്മുടെ യാത്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബൈക്ക് ഓടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പല ആളുകളും അതുപോലെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ മൊബൈലൊക്കെ ചിലവിൽ യൂസ് ചെയ്തിട്ടാണ് ബൈക്ക് ഓടിക്കുന്നത് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ കൂടുന്നത് തുടർച്ചയായി എന്താ ബൈക്ക് ഓടിക്കുമ്പോൾ ഇതുപോലെ പ്രായപൂർത്തിയാവാത്തവരൊക്കെ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അവരുടെ നട്ടെല്ലിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സ്ട്രൈറ്റായിട്ട് നമ്മളിരുന്ന് കാൽ പോലും ചിലപ്പോൾ നിലത്തെത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വരെ ഇന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ഒരു അപകടം വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്